മതപരമായ ആ വിശേഷങ്ങളാണ് പള്ളിപ്പെരുന്നാള് മുസ്ലിംകളുടെയും ക്രിസ്ത്യൻസിൻ്റെയും പള്ളികളിൽ പെരുന്നാളുകൾ ഉണ്ടാകുന്നു ആ ദിവസം അവർ നെയ്ച്ചോറു പത്തിരി ബിരിയാണി തുടങ്ങിയ ഭക്ഷണസാധനങ്ങളാണ് ഉണ്ടാക്കുക അതേസമയം ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലെ പൂരം കൊടിയേറ്റം തുടങ്ങിയ ഉത്സവങ്ങളിൽ അവർ ആവുന്നതും നോൺവെജ് വസ്തുക്കൾ ഉണ്ടാക്കാറില്ല പകരം പുലാവ് തൈര് സാദം പൊങ്കല് തുടങ്ങിയ വസ്തുക്കളാണ് ഉണ്ടാക്കാറുള്ളത് പൊങ്കൽ പറയുന്നത് ഒരു വളരെയധികം വിശേഷപ്പെട്ട ഒരു ഉത്സവമാണ് ഹിന്ദുക്കളുടെ ഇടയിൽ അതായത് പൊങ്കൽ ചോറ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ പൊങ്കലിന് പച്ചരി കൊണ്ടാണ് ഈ ഭക്ഷണസാധനം ഉണ്ടാക്കുന്നത് പച്ചരി പ്ര പ്രത്യേകമായി വേവിച്ച് അതിൽ മഞ്ഞപ്പൊടിയും ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാം കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് നാളികേരം ചിരകിയിട്ട് ശർക്കരയും ശർക്കരപ്പാവ് കാച്ചി ഒഴിച്ച് അങ്ങനെ ആ രീതിയിലാണ് പൊങ്കൽ ഉണ്ടാക്കുന്നത്